ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിൽ നല്ല മൂത്രപ്പുരയും അതു പോലെ തന്നെ കുടിവെള്ള സൗകര്യവും പുസ്തകങ്ങളും മേശകളും കസേരകളൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ട് നിലവിലുണ്ട് അപ്പം അതിൽ മെച്ചപ്പെടുത്താനുള്ള കാര്യം എന്താ വെച്ചാൽ മൂത്രപ്പുര ശുദ്ധിയാക്കി ശുചീകരണത്തോടെ കൊണ്ടു പോകുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മളുടെ ഗ്രാമങ്ങളിൽ കാണുന്നതാണ് ഒരു നല്ല ടൈൽ ചെയ്തിട്ട് നല്ല രീതിയിലാക്കാത്ത മൂത്രപ്പുരകളുണ്ട് അത് മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ പ്രത്യേകിച്ചും കാരണം എന്താ വെച്ചാൽ പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയാൽ അർഹപ്പെട്ട കുട്ടികൾ കൂടി വലിയ കുട്ടികൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലാക്കണം സ്കൂളിൽ ടോയ്ലറ്റുകളിൽ അതുപോലെ തന്നെ കുടിവെള്ളം കുടിവെള്ളം ഇപ്പോൾ ഒരു ടാങ്ക് കുടിവെള്ളത്തിന് ആയിട്ടൊരു വലിയ സ്കൂളിൽ ഏഴു വരെയുള്ള ക്ലാസുകാരാണെന്നുണ്ടെങ്കിൽ കൂടി ഒരു ടാങ്ക് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഗ്രാമത്തിലുള്ളത് അത് മ മാറിക്കൊണ്ട് എല്ലാ ഫ്ലോറിലും ആയിരത്തിനടുത്തു വരുന്ന സ്റ്റുഡൻസുണ്ട് അപ്പോൾ എല്ലാ ഫ്ലോറിലും ഫ്ലോറിൻ്റെ തന്നെ രണ്ടു ഭാഗത്തും വെള്ളത്തിനുള്ള കൂളറുകൾ വെച്ചാൽ അതു വളരെ നല്ലതായിരിക്കും കാരണം ഈ വെള്ളം നന്നായിട്ട് കൂടിക്കുമ്പോഴാണ് കുട്ടികൾക്ക് പഠനത്തിന് അതു പോലെ തന്നെ നല്ല സഹായിക്കും എങ്ങനെയെന്നു ചോ ചോദിച്ചാൽ മെൻ്റലി പെരുമാറ്റവും ഹെൽത്തിനൊക്കെ വെള്ളം കൂടുതൽ കുടിക്കാനുള്ളത് നല്ലതാകുന്നു അതുപോലെ തന്നെ സൗന്ദര്യത്തിനും നല്ലത് തന്നെയാകുന്നു അതുപോലെ തന്നെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടു കൂടി തന്നെ പുസ്തകത്തിനുള്ള ഔപ്പതികളെ അതുപോലെ തന്നെ നോട്ട് പുസ്തകം കൂടി താഴെയുള്ള സ്കോളർഷിപ്പിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും സ്കോളർഷിപ്പ് കിട്ടാതെ പാവപ്പെട്ട കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെയൊരു സഹായമാകും അങ്ങനത്തൊരു മെച്ചപ്പെടുത്തൽ കൊണ്ടു വരാവുന്നതാണ് അതു പോലെ തന്നെ മേശയും കസാരയും മാറ്റുന്നത് ഒരു നിശ്ചിത രണ്ടു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ മേശയും കസേരയും മാറ്റുന്നത് നന്നാകും കാരണം ചില കസേരകളൊക്കെ വർഷങ്ങളായിട്ട് പത്തു വർഷങ്ങളായിട്ടും ഉപയോഗിക്കുന്ന മേശയും കസേരകളുണ്ട് അത് അദ്ധ്യാപകർ ഉപയോഗിക്കുമ്പോൾ അദ്ധ്യാപകർക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് അത് പൊട്ടി കൊണ്ട് അപകടം വരെയുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രായം വരെ മാഷന്മാരും ടീച്ചേഴ്സും ഒക്കെ ക്ലാസ്സെടുക്കുന്നതാണ് എന്നുള്ളതു കൊണ്ടു തന്നെ പിന്നെ ഭക്ഷണം ഭക്ഷണം എന്നും ഒരേ രീതിയിലുള്ള ഭക്ഷണമാണ് നൽകുന്നത് അതിൽ കുറച്ച് മെച്ചപ്പെടുത്തൽ കൊണ്ടു വരൽ അനിവാര്യമാണ് അപ്പോൾ വേണ്ട രീതിയിലുള്ള പോഷകാഹാരങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പയറുകളും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കുട്ടികളുടെ ഹെൽത്തിൻ്റെ വിഭാഗങ്ങൾ സ്കൂളിൽ തന്നെയുള്ള ഹെൽത്തിൻ്റെ വിഭാഗങ്ങൾ വെൽഫെയറിൻ്റെ വിഭാഗങ്ങൾ കൊണ്ടു വരികയാണെങ്കിൽ അതു വളരെ നന്നാകും അങ്ങനത്തെ ഒരുപാട് ഇങ്ങനത്തെ കുറച്ച് മെച്ചപ്പെടുത്തലുകൾ ഈ എല്ലാ ഏരിയകളിലും ഈ പറഞ്ഞ എല്ലാ ഏരിയകളിലും കൊണ്ടു വന്നാൽ നന്നായിരിക്കും